നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മൂന്ന് രണ്ടായിരത്തി അഞ്ച് മുപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒന്ന് ഒന്ന് രണ്ടായിരം ഒന്ന് അഞ്ച് രണ്ടായിരത്തി അഞ്ച്